മലയാളം ത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് കൂട്ടുകാരെന്ന വാക്കാണ് കൂട്ടുകാര് ചെറുപ്പം തൊട്ടേ നമ്മുടെ കൂടെ കളിച്ച് വളർന്ന് ഒരു ഇംപോർട്ടന്റ് ആയ വ്യക്തികളാണ് അതുപോലെതന്നെ അവര് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം വഹിക്കുന്ന വ്യക്തികളാണ് അവര് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും ന്ന വ്യക്തികളാണ് അതുകൊണ്ടുതന്നെ അവർക്ക് ലൈഫില് ഒരുപാട് ഇംപോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആ വാക്കാണ് ഏറ്റവും കൂട്ടുകാരെന്ന വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളം എന്ന ഭാഷ വെറുമൊരു ഭാഷയല്ല അതൊരുതരം വികാരമാണ് മലയാളം സംസാരിക്കുന്നതിലും മലയാളി എന്നതിലും എനിക്കൊരുപാട് അഭിമാനമുണ്ട് മലയാള സ ഭാഷയിലൂടെ നമുക്കൊരുപാട് ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കും അത് സംസാരിക്കുന്നതിലൂടെ സോ മലയാളം മലയാളി എന്നതിലും മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളെന്നതിലും എനിക്കൊരുപാട് അഭിമാനമുണ്ട്